പ്രപഞ്ചത്തെപ്പറ്റി ഇപ്പോഴും പരിഹരിക്കാത്ത ഒരു തർക്ക വിഷയമാണ് മഹാവിസ്ഫോടനം അത് ഒന്നുമില്ലായ്മ്മയിൽ നിന്നും സമയവും സ്പേയ്സും എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെക്കുറിച്ചുള്ള തർക്കമാണ് ചിലരുടെ അഭിപ്രായം ഇതിന് മുമ്പുണ്ടായിരുന്ന ഒരു യൂണിവേഴ്സിൻ്റെ ഒരു പ്രപഞ്ചത്തിൻ്റെ അവസാനമാണ് ബിഗ് ബാങ്കെന്ന് അതാണ് ഇന്ന് കാണുന്ന പ്രപഞ്ചത്തെ ഉണ്ടാക്കിയതെന്ന് ചിലർ പറയുന്നുണ്ട് ചില ശാസ്ത്രജ്ഞർ പറയുന്നുണ്ട് പിന്നെ ചില ശാസ്ത്രജ്ഞർ പറയുന്നുണ്ട് സമയവും പ്രകാശവുമാണ് ആദ്യമുണ്ടായതെന്ന് പിന്നെ ഇപ്പോൾ പ്രപഞ്ചം വികസിച്ച് കൊണ്ടിരിക്കയാണ് അത് നമ്മൾ ഭൂമിയിൽ നിന്നും നിരീക്ഷിക്കുമ്പോൾ പല ഗ്യാലക്സികളും വളരെ വേഗത്തിൽ അകന്ന് പോയിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കാണ് ഉദാഹരണത്തിന് ആൻഡ്രോമടയായ നമ്മുടെ അടുത്ത ഗ്യാലക്സി നമ്മുടെ മിൽക്കി വേ യുമായിട്ട് കുറെ കോടി വർഷങ്ങൾക്ക് ശേഷം കൊളൈഡ് ചെയ്യുമെന്ന് പറയുന്നുണ്ട് അതേ സമയം തന്നെ പല ഗാലക്സികളും അകന്ന് പോവുകയാണ് അകന്ന് പോകുന്ന ഗാലക്സികളുടെ വേഗത പല സമയത്തും ദൂരം കൂടുന്തോറും അതായത് നമ്മുടെ ഗ്യാലക്സിയിൽ നിന്നും ദൂരം പല ദൂരത്തിൽ ആകുമ്പോൾ അത് നമുക്ക് വേഗത്തിൽ പോകുന്നതായി തോന്നുന്നുണ്ട് തോന്നലല്ല അതങ്ങനെയാണ് പല ഗാലക്സികളും പ്രഭാ പ്രകാശ വേഗത്തേക്കാൾ വേഗത്തിലാണ് നമ്മളിൽ നിന്നും അകന്ന് പോകുന്നത് ഇത് യൂണിവേഴ്സിൻ്റെ അതായത് പ്രപഞ്ചത്തിൻ്റെ ബിഗ് വിഡ്ത് അതായത് വലിച്ച് കീറൽ എന്ന അവസ്ഥയിൽ കൊണ്ടെത്തിക്കുമെന്നാണ് പറയുന്നത് പിന്നെ മറ്റൊരു തർക്ക വിഷയമായിട്ടുള്ള കാര്യമാണ് ബ്ലാക്ക് ഹോളുകൾ തമോ ദ്വാരം ഇതിൻറ്റകത്ത് എന്താണ് സംഭവിക്കുന്നത് എന്ന് ഇപ്പോഴും പലർക്കും ആശ്ചര്യപ്പെടുത്തുന്ന കാര്യമാണ് അതായത് ഈ തമോദ്വാരത്തിൻ്റെ അകത്തെന്താണ് സംഭവിക്കുന്നതെന്ന് ഇപ്പോഴും തർക്ക വിഷയം തന്നെയാണ് ഉദാഹരണത്തിന് ഹോക്കിങ്ങ് റേഡിയേഷൻ പോലുള്ള സിദ്ധാന്തം ഡെൻ ഡെൻസിറ്റി ബ്ലാക്ക് ഹോളിൻ്റെ ഡെൻസിറ്റി ഭൂമി ഒരു ബ്ലാക് ഹോൾ ആകണമെങ്കിൽ അതിൻ്റെ ഷ് ഒരു പോയൻറ്റിനപ്പുറത്തേക്ക് ഇത് ഷ്രിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഭൂമിയും ഒരു ബ്ലാക്ക് ഹോളാക്കാമെന്നാണ് പറയുന്നത് പിന്നെ വൈറ്റ് ഹോളുകൾ നക്ഷത്രത്തിൻ്റെ സ്ഫോടനം നക്ഷത്രത്തിൻ്റെ ജീവിത അവസാനത്തിന് ശേഷം എന്താണ് സംഭവിക്കുന്നത് എന്നിവയെല്ലാം ഇപ്പോഴും തർക്ക വിഷയമാണ്